നമ്മുടെ മാധ്യമങ്ങൾ ഭക്ഷണത്തെ പറ്റി സമയം സം ഭക്ഷണ കാര്യങ്ങൾക്കായിട്ട് സമയം മാറ്റി വെക്കാറുണ്ട് അതാണ് എനിക്ക് തോന്നുന്നത് വ് വ് കൂക്കറി ഷോയായിട്ടും അല്ലെങ്കിൽ ഏതെങ്കിലും റെസ്റ്ററാൻറ്റുകൾ സ് ടെ നല്ല വശങ്ങളെ പറ്റി മറ്റുള്ളവരിലെത്തിക്കാനും അല്ലെങ്കിൽ മോശം ഭക്ഷണം കൊടുത്തത് മറ്റുള്ളവരിലെത്തിക്കാനുമൊക്കെ ശ്രദ്ധ ശ്രദ്ധിക്കാറുണ്ട് അതൊരു നല്ല ആശയമായിട്ടാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ഒരോ പ്രദേശത്തെയും ഭക്ഷണ രീതികളെ പറ്റി ഓരോ കടകളിൽ ഓരോ സ്പെഷ്യൽ ഫുടൊക്കെ ഓരോ കടകൾക്ക് കാണും അതവരുടെ ഒരു ഗുഡ് നേമായിരിക്കും അതിനും അതിന് പ്രൊമോട്ട് ചെയ്തോണ്ടും ഒക്കെ ഓരോ ഇപ്പം ഫോണിലെ ചാനൽ ഫോണിലെ യൂടൂബിലോ അല്ലെങ്കിൽ മറ്റ് ഇതിലുവൊക്കെ ങ്കി ഇദേ അല്ലെങ്കിൽ മറ്റേ നമ്മുടെ ടീ വി ചാനലുകളിലുവൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അത് നല്ല കാര്യമാണ് പിന്നെ നമ്മുടെ ഭക്ഷണത്തിൻ്റെ വിലയെ സംബന്ധിച്ചും അല്ലെങ്കിൽ ഭക്ഷണം പച്ചക്കറി പലവ്യജ്ഞനം അങ്ങനെയുള്ള വില കൂടുമ്പോഴും കുറയുമ്പോഴും അതൊക്കെ റിപ്പോർട്ട് ചെയ്യാറുണ്ട് അത് മറ്റുള്ളവർക്കൊരു അറിവുമാണ് അതുപോലെ തന്നെ അത് ഉപകാരപ്രദവുമാണ് പിന്നെ ഓരോ സ്പെഷ്യൽ വിഭവങ്ങളെ പറ്റിയുള്ള അല്ലെങ്കിൽ അതങ്ങ് ഉണ്ടാക്കുന്ന ഷെഫ്മാരെ പറ്റിയൊക്കെയുള്ള റിപ്പോർട്ടുകളും അങ്ങനെയുള്ള കാര്യങ്ങളുവൊക്കെ കൊടുക്കുന്നതും അവരെയൊക്കെ അറിയാനും അവരുടെ ജീവിതസാഹചര്യങ്ങളറിയാനും അവരുടെ ജി തൊഴിൽ മേഖലയെ പറ്റിയറിയാനുവൊക്കെ നല്ല കാര്യങ്ങളാണ് ചെയ്യുന്നത് പിന്നെ നമ്മുടെ പ്രത്യേക ഭക്ഷണങ്ങളെന്ന് പറഞ്ഞാൽ ശരിക്കും ഇഡലി സാമ്പാർ ഒരു തമിഴ് തമിഴ് പാരമ്പര്യമുള്ള ഭക്ഷണമാണ് മലയാളികളത് ഏറ്റെടുത്ത് സ്വന്തമാക്കിയതാണ് അങ്ങനെയൊരു കാര്യം കൂടെ ഞാൻ എൻ്റെയൊരു അറിവു പകരുകയാണ് പിന്നെ നമ്മുടെ ഫുഡുകൾ പുട്ട് കടല അല്ലെങ്കിൽ പുട്ട് പഴം അല്ലെങ്കിൽ അപ്പം സ്റ്റു അപ്പം ഉരുളക്കിഴങ്ങു അങ്ങനെയുള്ള ഭക്ഷണങ്ങളൊക്കെ നല്ലതാണ് പിന്നെ സദ്യ സദ്യക്ക് ഉള്ള കേരള സ്റ്റൈല് സദ്യ അതിൻ്റെ വിഭവങ്ങൾ പ്രത്യേകിച്ച് നമ്മുടെ ഓണം വിഷു പോലെയുള്ള സാഹചര്യങ്ങളിലൊക്കെ ഫുഡിനെ പറ്റിയുള്ള സ്പെഷ്യൽ അറിവുകൾ അല്ലെങ്കിൽ കൂക്കറി ഷോകളും ഒക്കെ ന്ന ചാനലുകളിലൊക്കെ വരാറുണ്ട് അല്ലെങ്കിൽ അതുമല്ലെങ്കിൽ ഓരോ ഫുഡ് ഉണ്ടാക്കുന്ന എങ്ങനെയെന്നുള്ളത് യൂടൂബ് ചാനലുകളിലെല്ലാം എസ്പ്ലൈൻ ചെയ്യുന്ന പല പല വ്യക്തികളും ഉണ്ട് അതൊക്കെ ഉപകാരപ്രദമായിട്ടാണ് എനിക്ക് തോന്നുന്നത്